പാലക്കാട് ജില്ലയിലെ കാലാവസ്ഥയെന്ന് പറയുമ്പോൾ ഒരോ സമയത്ത് ഓരോ കാലാവസ്ഥയാണ് എല്ലാം അത്യാവശ്യം നല്ല രീതിയില് അനുഭവിക്കുന്ന ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത് മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ തണുപ്പാണെങ്കിൽ തണുപ്പ് നമ്മളീ മലയോര പ്രദേശത്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് നല്ല രീതിയില് തണുപ്പ് കിട്ടുന്ന സ്ഥലമാണ് ഇതൊരു ജനുവരി ഫെബ്രുവരി ഡിസംബർ ആ സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കും അപ്പോൾ രാവിലെയൊന്നും എണീച്ചു പുറത്തു പോകാനൊന്നും പറ്റില്ല അപ്പോൾ മൂടൽമഞ്ഞ് മൂടീട്ട് നമുക്ക് റോഡ് ഒന്നും കാണില്ല അപ്പോൾ രാവിലെ എണീച്ചിട്ട് അതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാ അല്ലെങ്കിൽ നല്ല തണുപ്പ് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല ഒരു ഏഴ് എട്ട് മണി ആവാണ്ട് തണുപ്പ് വിട്ട് പോവുന്ന സന്ദർഭമേ ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് രാവിലെ എണീച്ചിട്ട് ഈ പാൽ കൊടുക്കാൻ പോകുന്നവര് നടക്കാൻ പോകുന്നവര് രാവിലെ എണീച്ച് പത്രത്തിൽ പത്രം ഇടാൻ പോണവര് അവർക്കൊക്കെ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതാണ് പിന്നെ വേനൽകാലമെന്ന് പറയുമ്പോൾ മാർച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല വേനൽ കാലമാണ് ചുട്ട് പൊള്ളിയിട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും നമുക്ക് റൂം വീട്ടിലിരിയ്ക്കാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പറ്റില്ല സൂര്യാഘാതമൊക്കെ ഏൽക്കുന്ന അവസ്ഥയാണ് വെള്ളവും ഉണ്ടാവില്ല വെള്ളം കിണറ്റില് വെള്ളമുണ്ടാവില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വേനൽകാലത്ത് പാലക്കാട് ജില്ലയിലൊക്കെ ഇരിക്കാൻ പരമാവധി എന്താണ് മുപ്പത്തി രണ്ടും മുപ്പത്തിയഞ്ചും നാല്പത് ഡിഗ്രീ സെൽഷ്യസും നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസു വരെ ഒക്കെ എന്തു ചെയ്തിട്ടുണ്ട് ഇവിടെ പാലക്കാട് പാലക്കാട് ജില്ലയിലൊക്കെ ചൂട് കൂടിയിട്ട് വന്നിട്ടുണ്ട് പിന്നെന്താ മഴക്കാലം വന്ന് കഴിഞ്ഞാല് അതിൻ്റ അപ്പുറത്തേക്കാണ് മഴക്കാലം വരുമ്പോൾ നല്ല വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണിതൊക്കെ വെള്ളം ചുറ്റും കെട്ടി കിടക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്